നമ്മക്കറിയാവുന്ന അതായത് മറ്റ് ഭാഷാകളുവായിട്ട് മലയാള ഭാഷയെ താരതമ്യം ചെയ്യാണെന്ന് വച്ചിട്ടുണ്ടെങ്കില് ഇപ്പം നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഭാഷകളും കാര്യങ്ങളൊന്നും വലിയ കാര്യായിട്ടറിയില്ല മലയാളം അല്ലാണ്ട് നമുക്ക് കൂടുതലായിട്ടും മലയാളം തന്നെയാണ് അറിയുന്നത് അപ്പം ഇപ്പം മക്കളും കുട്ടികളക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോഴൊക്കെ ഇത് അവരിങ്ങനെ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അതായത് സംസാരിക്കും അങ്ങനേക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതായത് നമുക്ക് വലിയ കാര്യായിട്ട് അറിയുകയൊന്നും ഇല്ല എന്നാൽ അവർക്കായിരിക്കും കൂടുതലായിട്ടറിയ പക്ഷെ അവര് നമ്മളോട് സംസാരിക്കുമ്പോൾ മലയാളത്തിലൊക്കെയാണ് സംസാരിക്കുക പിന്നിപ്പം നമുക്ക് നമ്മുടെ ഇവിടെ ഇപ്പോൾ കൂടുതലാൾക്കാരെന്ന് വച്ചിട്ടുണ്ടെങ്കില് കുട്ടികള് കാര്യങ്ങളൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മലയാളോക്കെയായിരിക്കും കൂടുതലും സംസാരിക്കുക പിന്നെ മലയാളവും പിന്നെ ഇംഗ്ലീഷ് അങ്ങനേള്ളത് അതായത് നമ്മളോട് സംസാരിക്കുമ്പോൾ മലയാളത്തി തന്നെയാണ് സംസാരിക്കുക കാരണം നമുക്ക് അതല്ലേ അറിയൂള്ളൂ ഇപ്പം അവര് കൂടുതലായിട്ട് ഇംഗ്ലീഷ് അവര് സ്കൂളിലൊക്കെ പല ഭാഷകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാകും